ഇപ്പം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കാഴ്ചവയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രശസ്തമായ കോച്ചിംഗ് സെന്ററുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് പിന്നെ പല രീതിയിലുള്ള എൻട്രൻസ് ക്ലാസുകൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നല്ല രീതിയില് വരുന്നുണ്ട് പിന്നേന്നു പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ കൂടുതലായിട്ടും പ്ലസ്ടു പ്ലസ് വൺ അങ്ങനെത്തെ ക്ലാസുകളിൽ കൂടുതലായിട്ടും സയൻസ് ക്ലാസ് ആണ് കൂടുതലായിട്ടും ഇവര് എടുക്കുന്നത് അപ്പം സയൻസിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് സയൻസ് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നല്ല ഒരു എന്താ വേണമെങ്കിൽ പറയാം നമുക്ക് മറ്റൊരു നഴ്സിംഗ് പിന്നെ എഞ്ചിനീയറിങ് അങ്ങനെയുള്ള ക്ലാസുകളിൽ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം നല്ല രീതിയിലുള്ള ഇതൊക്കെ നമുക്ക് കിട്ടും പിന്നെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഇരുനൂറ്റി മുപ്പത്തി ഏഴ് സ്കൂളുകളും കോളേജുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് അങ്ങനത്തെ അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കില് കിട്ടും പിള്ളേർക്ക് പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപകാരമാണ്